ഏഴു ലക്ഷത്തി ഏഴുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി പതിനാല് എട്ടു ലക്ഷത്തി ഇരുപത്തി മുവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് നാല് ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത്